ഇവിടെ അടുക്കളയിൽ എപ്പോഴും എലികളെ കാണുന്നുണ്ട് ഞങ്ങൾ പണ്ടൊക്കെ എലികളെ കെണിവെച്ച് പിടിച്ച് വെള്ളത്തിൽ മുക്കി കൊല്ലുമായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല ഇപ്പം ഞങ്ങളെ ഇവിടൊരു ഒഴിഞ്ഞ ഒരുകാട് പോലെയുണ്ട് ചെറിയ ഒരു കുറ്റിക്കാടുണ്ട് അപ്പം ഞങ്ങൾ കെണി വെച്ച് കെണീൻ്റെ ഉള്ളിൽ അയിറ്റക്ക് ഫുഡിന് എന്തെങ്കിലും ചെറിയ ഫുഡെന്തെങ്കിലും അതിൽ കൊളുത്തി വെച്ചിടും എന്നിട്ട് രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് അടുക്കളയിൽ വെച്ചിട്ട് ഞങ്ങൾ വരും രാവിലെ ആകുമ്പോൾ അവരതിൽ കുടുങ്ങിയിട്ടുണ്ടാകും അങ്ങനെ ഞങ്ങൾ അതിനെ എടുത്ത് ആ ചെറിയ കുറ്റിക്കാടുണ്ട് അതിൽ കൊണ്ടുപോയി കളയാറാണ് പതിവ് പാറ്റകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കബോർഡ് ഷെൽഫിൻ്റെ ഉള്ളിൽ വന്ന് കയറുന്നുണ്ട് അപ്പം ഇതുപോലെ ഞങ്ങൾ ആദ്യമൊക്കെ ഒരു ചോക്ക പോലെ ഒരു സാധനമുണ്ട് വിഷം കൂറകളെയൊക്കെ പാറ്റകളെയൊക്കെ നമ്മൾ ഇല്ലാതാക്കണ ഒരു ചോക്ക് സാധനം ഉണ്ടായിരുന്നു ആ സാധനം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം അത് വരച്ചു കൊടുക്കുമായിരുന്നു പതിവ് ഇപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ അത് എടുത്ത് ഉപയോഗിക്കുന്നുള്ളൊരു പേടി കാരണം ഞങ്ങളത് ഉപയോഗിക്കാറില്ല ഇപ്പം ഞങ്ങൾ അതിനെ കാണുമ്പം തന്നെ ഷെൽഫ് കബോർഡിൻ്റെ ഉള്ളൊക്കെ വൃത്തിയായി സൂക്ഷിച്ച് പേപ്പറൊക്കെ വിരിച്ച് നല്ല വൃത്തിക്ക് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങളത് ഉപയോഗിക്കുന്നില്ല ആദ്യം അതാണ് ഉപയോഗിച്ചിട്ടാണ് അവയെ ഇല്ലാതാക്കിയിരുന്നത് ഇപ്പം എലിയാണെങ്കിലും പാറ്റയാണെങ്കിലും ഒന്നോ രണ്ടെണ്ണമൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ വേഗം അതിനെ ഇല്ലാതാക്കാനുള്ള വഴി നോക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഇപ്പം ഉള്ളിലേക്ക് അധികമായിട്ട് കാണുന്നത് അടുക്കളയിലാണ് അടുക്കളേൻ്റെ കബോർഡുകളിൽ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് അങ്ങനെയൊക്കെയാണ് കാണുന്നത് അപ്പം ഭയങ്കരമായിട്ട് ശല്യമാവുണ്ട് അപ്പോൾ കൊല്ലുക അവരെ പിടിക്കുകയല്ലാതെ യാതൊരു ഇതുമില്ല അപ്പം ഇടക്കിടക്കൊക്കെ കെണി വെച്ചിട്ട് ഒന്നോ രണ്ടെണ്ണത്തിനെയൊക്കെ പിടിക്കും പിടിച്ച് ആദ്യം വെള്ളത്തിലിട്ട് കൊല്ലുക അല്ലെങ്കിൽ ഒഴിവാക്കുക അല്ലാതെ നമുക്ക് അവയെ വീട്ടിൽ ഉള്ള നമുക്ക് അസുഖങ്ങൾ വരും അതുകൊണ്ട് അവയെ എടുത്ത് കളയണം അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കബോർഡിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ കൂടിയും ഒക്കെ ഈയൊരു പാറ്റകൾ വരും അപ്പം അതിനെ ഒക്കെ ബാത്റൂമിൻ്റെ ഉള്ളിൽ പിന്നെ എന്നും നമ്മൾ നീറ്റാക്കി ഇട്ടാലും അവർ എങ്ങനെയെങ്കിലുമൊക്കെ വരുന്നുണ്ട് പക്ഷെ കബോർഡ് ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ എപ്പോഴും നീറ്റാക്കിയിട്ടങ്ങനെ അതിൻ്റെ ഉള്ളിൽ അടച്ചിട്ടാലങ്ങനെ കയറാൻ വലിയ വഴിയില്ല എപ്പോഴെങ്കിലുമൊക്കെ കയറും അപ്പോൾ നമ്മ അത് വീണ്ടും ശരിയാക്കി കൊടുത്താൽ അവയങ്ങനെ വരില്ല അല്ലാതെ നമ്മൾ ഇത് ഈ വിഷമാണ് ഈ ചോക്കൊക്കെ അപ്പം മക്കളെടുത്താൽ പിന്നത് അതിലേറെ ബുദ്ധിമുട്ടാണല്ലോ പിന്നെ അതുപയോഗിക്കാറില്ല ഇപ്പോൾ